എൻ്റെ മകളുടെ വിദ്യാഭ്യാസകാര്യത്തിലാണെങ്കില് അവള് നന്നായി അവൾക്ക് പറ്റുന്നത്ര അവളുടെ കഴിവിനനുസരിച്ച് പറ്റുന്നത്രയും പഠിക്കണം പഠിച്ച് അവൾക്ക് സ്വന്തം കാലിൽ നില്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജോബ്ബ് നേടണം ഇപ്പഴത്തെ കാലത്ത് ജീവിക്കാണെങ്കില് പെണ്കുട്ടികള് അവര് സ്വയം ജീവിക്കാനും അവരുടെ കാര്യങ്ങള് ചെയ്യാനും ഉള്ള സ്വയം അ പര്യാപ്തരാകുക തന്നെ വേണം അതിനവര് പഠിക്കണം ഒരു ജോലി നേടണം അവര് ഒരു ജോലി കിട്ടി അവരുടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചപാട് ഒരു ഇതില് എത്തിക്കുകാണെങ്കില് അവർക്ക് അവരുടെ ജീവിതം നല്ല രീതിയില് കൊണ്ടുപോവാൻ പറ്റും ഇത് അവര് പഠിച്ചോണ്ടിരിക്കുന്ന പ്രായത്തിൽ തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് പത്തൊൻപത് ഇരുപത് വയസ്സ് ആകുമ്പോഴത്തേക്കും വിവാഹം കഴിയും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല പിന്നെ അവരൊരു അടുക്കളേല് അടുക്കളേൽ തളയ്ക്കപ്പെട്ട പോലെ അടുക്കള അടുക്കള കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് അവരുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോവുന്നത് പിന്നെ മക്കളും കുടുംബമൊക്കെ ആയിക്കഴിയുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ആഗ്രഹം എത്ര ഉള്ളിൽ ഉണ്ടെങ്കിലും അവർക്ക് പഠിക്കാൻ പറ്റാത്തഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ അവരൊരു വിവാഹ ജീവിതത്തിലേക്കോ ഒരു കുടുംബ ജീവിതത്തിലേക്കോ പറഞ്ഞുവിടുന്നതിന് മുന്പായിട്ട് അവർക്ക് എത്രത്തോളം പരമാവധി പഠിക്കാൻ പറ്റുവോ അത്രയും അവരെ പഠിപ്പിക്കുക അവരെ പഠിപ്പിച്ച് കഴിഞ്ഞ് അവർക്ക് എന്ത് ജോബിനാണ് താല്പര്യം എന്നുവെച്ചാല് താല്പര്യം ഉള്ളത് എങ്കിൽ അതനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ട് പോയി ആ പഠിപ്പിക്കുക അവര് അവർക്ക് സ്വന്തം കാലിൽ നിക്കാൻ പറ്റുന്ന ഒരു ജോബ് അവര് നേടി എടുക്കുക അതിന് ശേഷം ആണ് അവരുടെ കുടുംബ ജീവിതവും വിവാഹ ജീവിതവും ഒക്കെ വരുന്നത് എങ്കില് അവർക്ക് ആ കാര്യങ്ങളിലൂടെ പോവാൻ പറ്റും അവർക്ക് ഒരു ജോബ് ചെയ്യാം അവർക്ക് എന്താ പറയുക രണ്ട് പാർട്നെഴ്സിനും ഒരുപോലെ ജോബ് കാര്യങ്ങൾ ചെയ്യാം ബാക്കി മക്കളുടെ കാര്യങ്ങളാണേലും വീട്ടിലെ കുക്കിങും കാര്യങ്ങളും ഒക്കെ ആണേലും ഒരു പോലെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സഹകരണത്തോടെയോക്കെ ചെയ്യാം അപ്പൊൾ അവർക്ക് അവരൊരു ജോലിയും ഇല്ലാണ്ട് അല്ലേൽ ഒരുപാട് സ്റ്റഡി പഠിക്കാണ്ട് വീട്ടില് അങ്ങനെ ആജീവനാന്തം വീട്ടില് ഇരിക്കുന്ന ഒരാളാകുമ്പോൾ അവരാ വീട്ടിലെ കാര്യങ്ങള് മാത്രം നോക്കി ഒതുങ്ങി കൂടേണ്ട ഒരു സാഹചര്യം വരും ഇപ്പൊൾ എന്തുകൊണ്ട് അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുവോ അത്രത്തോളം പഠിപ്പിച്ച് അവർക്കൊരു ജോബ് ആയതിനു ശേഷം മാത്രം ആ അവരെ വിവാഹം കഴിപ്പിച്ച് വിടുക പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തില് ഇപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരുപാട് പഠിക്കാനും പുറത്ത് അവര് ഒറ്റക്ക് പോയി നിക്കേണ്ടി വരുമ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട് അവർക്ക് ധൈര്യത്തോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനോ അല്ലേൽ ഒക്കെയുള്ളരു ധൈര്യക്കുറവ് ഒരു ധൈര്യക്കുറവ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളുമൊക്കെയാണ് അപ്പൊൾ അവർക്കൊരു ധൈര്യത്തിലിറങ്ങി സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല അപ്പൊൾ അവർക്കത് നടക്കണേല് നമ്മുടെ നിയമത്തിലുള്ള മാറ്റങ്ങള് വരണം കുട്ടികൾക്ക് പേടി ഇല്ലാണ്ട് പെണ്കുട്ടികൾക്കാണെലും പുറത്തിറങ്ങി നടക്കാനുള്ളൊരു സാഹചര്യം വരണം അപ്പോൽ അവർക്ക് പുറത്ത് പോയിട്ട് പഠിക്കാൻ ആണെങ്കിലും ഇവിടെ ഇല്ലാത്ത സ്റ്റഡികളും ഹയർ സ്റ്റഡികളും എവിടെയും പോയി പടിക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല മറ്റേത് നമുക്ക് കുട്ടികൾക്ക് പുറത്ത് പോകാനുള്ള പേടി അല്ലെങ്കിൽ പാരന്റ്സിന് വീട്ടുകാർക്ക് പുറത്തെവിടെയെങ്കിലും പോയി നിന്ന് പഠിക്കുമ്പോൾ ഉള്ള ഓരോ പ്രോബ്ലംസ് കാരണം അവർക്ക് പുറത്ത് വിടാൻ പാരന്റ്സിനുള്ള പേടി അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങള് പെൺകുട്ടികളുടെ പഠനത്തിലിപ്പോൾ ഒള്ള ഇപ്പൊൾ പെൺകുട്ടികളുടെ പഠനത്തില് ഒരു പ്രോബ്ലായിട്ട് വരുന്നത് അതല്ലാണ്ട് നമുക്കെത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ പഠിപ്പിക്കുക തന്നെ ചെയ്യുക ആ അവർക്ക് വേണ്ടുന്നൊരു ജോബ് വാങ്ങി എടുക്കാൻ കഴിയണം അവര് സ്വന്തം കാലില് അവരെ കാര്യങ്ങള് അവർക്ക് നോക്കാൻ കഴിയണം അവർ സ്വയം പര്യാപ്തരായിട്ട് അവര് ജീവിക്കണം